വിദ്യാഭ്യാസം ചില പരമ്പരാഗത ആചാരങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞെങ്കിൽ ഉണ്ട് പണ്ട് കാലത്തെല്ലാം അന്ധവിശ്വാസം കൂടുതലായിരുന്നു ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവർ കൂടുതൽ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പം ഈ ഭാവിയെക്കുറിച്ചിട്ടൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവർ അന്ധവിശ്വാസത്തിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല പിന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭാവി കുട്ടികൾക്ക് നമ്മൾ മികച്ച വിദ്യാഭ്യാസം നൽകണം കാലക്രമേണെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രശ്നങ്ങളും പിന്നെ വെല്ലുവിളികളും തരണം ചെയ്യുന്നതിനായി നമ്മൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട് അപ്പം രാജ്യത്തിൽ ഫുൾ മൊത്തം വിദ്യാർഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനായി സർക്കാർ ചില പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ബ്രിട്ടീഷ് നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് മുമ്പും ശേഷവും ഇന്ത്യയിൽ ഇന്ന് വരെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റം കാണാൻ സാധിക്കും തുടക്കത്തിൽ ഗുരുകുലങ്ങളിലാണ് കുട്ടികളെ പഠിപ്പിച്ചത് അത് പിന്നീട് എന്തായി ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായമായി മാറി അപ്പം ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം കുറേ മൗലീകാവകാശങ്ങളെല്ലാം വന്നു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകി പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായം പ്രധാനമായും പ്രീപ്രൈമറി പ്രൈമറി എലിമെൻറ്ററി സെക്കണ്ടറി വിദ്യാഭ്യാസം ഇങ്ങനെ കുറേ തരം വിദ്യാഭ്യാസ രീതികളുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഉന്നത പഠനങ്ങൾ നടക്കുന്നത് എന്നെങ്കിലും ഈ സംവിധാനത്തിൽ നിരവധി പോരായ്മകളും പഴുതുകളും ഉണ്ടായിരുന്നു അപ്പം അത് നിയന്ത്രിക്കാൻ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് പ്രവർത്തിക്കാം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കുറച്ചു പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ചിലവ് ഇന്ത്യേയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വികസനത്തിന് കൂടുതൽ ഫണ്ട് വേണം അപ്പം കുറച്ച് വർഷങ്ങളായിട്ട് ഈ ദിശയിൽ നിരവധി പ്രയോജനകരമായ നടപടികൾ ചെയ്തു കൊണ്ട് ഉണ്ട് പിന്നെ ലോകത്തിൽ ഇപ്പോൾ കുറേ എന്ത് വിദ്യാർഥികളെ ഉയർത്താനും അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനും സർക്കാർ സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ആശയങ്ങൾ നമ്മൾ വിദ്യാർഥികളുടെ ആശയങ്ങൾ കേട്ടു കൊണ്ടിരിക്കണം പ്രത്യേകിച്ചിട്ട് സർക്കാർ സ്കൂളുകളിൽ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകണം സർക്കാർ ഇപ്പോൾ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനാണ് ശ്രദ്ധ കൊടുത്തു കൊണ്ടുള്ളത് സർക്കാർ സ്കൂളുകളിലും ഗ്രാമ പ്രദേശത്തിലും ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള നടപടി അവർ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർഥികൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ പിന്നെ വിദേശത്ത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന നിരവധി വിദ്യാർഥികളുണ്ട് അപ്പോൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കുറേ മാർഗ്ഗങ്ങളുണ്ട് അതായത് ഇന്ത്യ ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിലേക്കാണ് നീങ്ങുന്നത് പിന്നെ രാജ്യത്തെ വിദ്യാർഥികൾക്ക് പിന്നെ നവീന മനസ്സുകൾ വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം വിദ്യാഭ്യാസ സമ്പ്രദായത്തിനൊരു പരിവർത്തനം കൊണ്ടു വരുന്നുണ്ട് അതുപോലെ രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും നൽകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിനും കുറേ വ്യത്യാസമുണ്ട് എല്ലാവർക്കും തുല്യമായ അറിവ് വളരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതിന് ഇന്ത്യയിൽ മൊത്തം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം പുലർത്താൻ വേണ്ടിയിട്ട് നടപടികൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വച്ചാൽ നമ്മളെ സർവ്വ ശിക്ഷാ അഭിയാൻ എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക അതാണ് ആ പദ്ധതിൻ്റെ ലക്ഷ്യം നിലവിലെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൽ ശക്തിപ്പെടുത്താനും പുതിയ സ്കൂൾ നിർമ്മാണം ഇതൊക്കെയാണ് ഈ സർവ്വ ശിക്ഷ അഭിയാൻ്റെ ലക്ഷ്യം പിന്നെ പ്രാഥമിക തലത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള കുറേ ദേശീയ പരിപാടി കൊണ്ട് വന്നിട്ടുണ്ട് അതായത് എത്തിച്ചേരാൻ പ്രയാസമുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് സ്കൂളിൽ ഇല്ലാത്തവരിലേക്ക് എത്താൻ ഇന്ത്യാ ഗവണ്മെൻറ്റ് ൻ്റെ ഒരു കേന്ദ്രീയമായ ഒരു ഇടപെടലാണിത് പിന്നെ ഉച്ചഭക്ഷണ പരിപാടി മിക്കവാറും സർക്കാർ സ്കൂളുകളും സർക്കാർ എയ്ഡഡ് സ്കൂളുകളും അതേ പോലെ പ്രത്യേക പരിശീലന കേന്ദ്രങ്ങളും പിന്നെ മദ്രസ്സകളിൽ അവിടെ എല്ലാം ഉച്ച ഭക്ഷണത്തിൻ്റെ പരിപാടി അതായത് മിഡ് ഡേ മീലാണ് കൊടുക്കുന്നുണ്ട് മിഡ് ഡേ മീല് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നൂറു കോടിയിലധികം ജനങ്ങളുമുള്ള രാജ്യത്തായി ഇന്ത്യയിലെ മൂന്നിൽ ഒന്ന് മാത്രമേ വായിക്കാൻ കഴിയു അതിവേഗം വളരുന്ന ജനസംഖ്യ പിന്നെ അദ്ധ്യാപകരുടെ കുറവ് പുസ്തകങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസ ചിലവുകൾ വഹിക്കാനുള്ള അപര്യാപ്തത പൊതു ഫണ്ട് എന്നിവയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ അപ്പം ഇന്ത്യയുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം അതിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ പ്രധാന സംഭാവനകളിലൊന്നായി പരാമർശിക്കുന്നു പ്രൈമറി സെക്കൻറ്ററി തലത്തിൽ സർക്കാർ നടത്തുന്ന സ്കൂളുകളെ ഒരു വലിയ സ്വകാര്യ സ്കൂൾ സംവിധാനമാണ് ഇന്ത്യയിൽ ഉള്ളത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിഭാഗത്തിലെ ഒരു അമ്പത് ശതമാനം കുട്ടികൾക്കെങ്കിലും പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നുണ്ട്